എന്റെ പുതിയ ഫോണാണ് കേട്ടോ ഓപ്പോ എയിറ്റ് ത്രീ വൺ ഞാനത് വാങ്ങിയിട്ട് ഒര് രണ്ടുമാസം ആവുന്നു വാങ്ങി ഒരാഴ്ച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയി അപ്പോൾ ഞാൻ അത് മാറ്റാനായിട്ട് അവരുടെ കടയിലേക്ക് വിളിച്ചത് അവർ തീരെ എടുക്കുന്നില്ല അവർ നമ്മളെ എന്താ എടുത്തില്ല അപ്പോൾ ഞാൻ അവരുടെ കമ്പനിക്ക് നേരെ ചെന്നിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വായെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവർ ഈ പ്രൊഡക്ട് വാങ്ങാൻ വേണ്ടി കുറെ ഫോഴ്സ് ചെയ്തു വാങ്ങിച്ചതാണ് പക്ഷേ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഫോണാണ് ഗ്യാലറി രണ്ട് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഗാലറി അടക്കം ഫുള്ളാണ് സ്റ്റോറേജ് സ്പെയ്സ് ഒന്നും തീരെയില്ല ബാറ്ററി കപ്പാസിറ്റി അതേയില്ല ഒരു നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അതു കുറയുകയാണ് ബാറ്ററി ലോ ബാറ്ററി കപ്പാസിറ്റി തീരെയില്ല ഞാനപ്പോൾ ഈ ഫോൺ മാറ്റാനാണ് നിങ്ങൾ ഒരിക്കലും ഈ ഫോൺ വാങ്ങരുത് വേറെ ഏതെങ്കിലും ഫോൺ വാങ്ങുക ഇത് എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോൺ അല്ല കവറൊക്കെ പൊട്ടി നാശമായിട്ടുണ്ട് ഇത് പൊട്ടിയിട്ടേയുള്ളൂ ഡിസ്പ്ലേ ഫുൾ പോയി ഇനി ഒന്നും പറയാനില്ല എന്തായാലും ഞാൻ വാങ്ങി ഇനി നിങ്ങൾ വാങ്ങാതിരിക്കുക